ഹലോ സെലീൻ മേമാണോ മേം ഞാന് പതനൊന്നില് പഠിക്കുന്ന ഡെൽനയുടെ പേരന്റാണേ തിരക്കിലായിരുന്നോ മേം ആ ഞാനെ മേം ഞാനാലോചിക്കുകയായിരുന്നു പ്ലസ് വണ്ണായല്ലോ അവള് ആ പഠിക്കാൻ വലിയ കുഴപ്പമില്ല ആള് അത്യാവശ്യം വീട്ടില് വന്നിട്ടാണേലും പഠിക്കുന്നെക്കെയുണ്ട് കൂടുതലീ ആർട്സ് ആൻഡ് ക്രാഫ്റ്റും മ്യൂസിക്കും മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്റ്റിവിറ്റീസിലൊക്കെയാണ് കൂട്തൽ ഇൻട്രസ്റ്റ് ആ

അതെ അല്ലേ ആ ഇവളാണേല് പഠിക്കും ഉഴപ്പൊന്നും ഇല്ല എന്നാലും കൂടുതലും പുള്ളിക്കാരിക്കീ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനും അതുപോലെയുള്ള ഓരോ കഴിവൊക്കെ വികസിപ്പിച്ചെടുക്കാൻ ഞാനതിനേക്കുറിച്ചൊന്നും പറയത്തൊന്നുമില്ല എന്നാലും അത്യാവശ്യം ട്രൈയൊക്കെ ചെയ്യുന്നുണ്ട് പഠിക്കാനൊക്കെയാണേലുവേ ചിലപ്പോള് എനിക്ക് ഭയങ്കരമൊരു ഇത് അവൾക്ക് ഇപ്പോഴും ഇത് ഇല്ല എന്നാണ് പ്ലസ് റ്റു കഴിഞ്ഞ് ഞാന് ഇടയ്ക്കിങ്ങനെ ചുമ്മാ ചോദിക്കും എന്നാ പ്ലസ് റ്റു കഴിയുമ്പോള് എന്നാ പ്ലാനെന്നൊക്കെ ചോദിക്കും അപ്പോള് രു എന്നാ എന്നാ പറയുന്നെ ഒരു തീരുമാനം ആയിട്ടില്ലിതുവരെ അവള് എനിക്കു തോന്നുന്നൊരു കൺഫ്യൂഷനിലാണ് അവൾക്ക് കോളേജില് പോവുകയോ അങ്ങനെ എന്നാ പറയുന്നെ കരിയർ ഗൈഡൻസല്ലേ കരിയർ ഗെയ്ഡൻസൊക്കെ നിങ്ങള് കോളേജില്നിന്ന് പ്രൊവൈഡിയ്യോ മേം നമുക്ക് എനിക്കു തോന്നുന്നു പ്ലസ് വൺ പ്ലസ് റ്റു കുട്ടികൾക്കൊക്കെ ആ

ശരി ശരി ആ ആ ഏതു വർഷമാണ് മേം ഞാനതിനെ കണ്ടിട്ടില്ല മേം ഞാൻ പ്ലസ് റ്റു പ്ലസ്റ്റൂവിലാണോ പ്ലസ് വൺ അവസാനാമാകുമ്പോള് കൊടുക്കുമോ കരിയർ ഗൈഡൻസൊക്കെ ആ

ഇനി മുതൽ എല്ലാവർക്കുമങ്ങു കൊടുക്കൂ ഒരുമിച്ചങ്ങു കൊടുക്കൂ ഇതിൻ്റെ ആവശ്യകതയും ചിലപ്പോള് എല്ലാവര്ക്കും അറിയണമെന്നില്ലല്ലൊ ക്ലാസ്സില് അനുയോജ്യമായ എല്ലാ കുട്ടികൾക്കുമങ്ങു കൊടുക്കുന്നതു നല്ലതല്ലേ ഒരു ദിവസം അതെയതെ

ആ മാം നാളെയല്ലേ എക്സാം സാധാരണ ഇന്ന് കുട്ടികളെഴുതിയത് എഞ്ചിനിയറിങ്ങ് അങ്ങനെ മെയ്നായിട്ടു വന്നതെപ്പോഴും അവർക്കു കേട്ടുപരിചയമുള്ള കുറച്ചു കോഴ്സസുണ്ടല്ലോ അവർക്കെ അല്ലാതെയിപ്പോള് ഞാൻ പറഞ്ഞില്ലേ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അല്ലെങ്കിലങ്ങനത്തെ അവരുടെ കഴിവിനനുസരിച്ചുള്ള സാധ്യതകളുടെ കോഴ്സുകളൊന്നും അവൾക്കറിയില്ല എനിക്കിവൾക്കു നല്ല കഴിവുണ്ടെന്നു തോന്നി ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പിന്നെ ടെയ്ലറ് നന്നായിട്ടു തയ്ക്കും ആള് അതു തയ്ക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ ഓരോ നമ്മള് പറഞ്ഞില്ലേ ഓരോ എനിക്കുമതങ്ങനെ കറക്റ്റായിട്ടു പറഞ്ഞു കൊടുക്കാന്വേണ്ടി നമുക്കിങ്ങനെയൊന്നും കിട്ടിയിട്ടില്ലല്ലോ ആണ് അപ്പോള് കിട്ടണമെന്നെനിക്കുണ്ട് എല്ലാ കിട്ടട്ടേ അവിടെയുള്ള എല്ലാ പിള്ളാരെയും അങ്ങനെവന്നു കരിയർ ഗയ്ഡൻസും കൊടുക്കുക ഓക്കെ ഓക്കെ വലിയ ഉപകാരമായിരുന്നു കഴിച്ചോ മേം കഴിപ്പൊക്കെ കഴിഞ്ഞോ ഓക്കെ താങ്ക്യൂ മാം താങ്ക്യൂ ശരി